ഹല്ലോ ആ ഹല്ലോ ഇത് ടെയ്ലർ അല്ലായിരുന്നോ ഞാനൊരു സ്കൂളിൽ നിന്ന് വിളിക്കുവായിരുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു ആ ഞാൻ വിളിച്ചത് എൻ്റെ സ്കൂളിലെ പിള്ളേർക്ക് ആനുവൽ ഡേക്ക് ഡ്രെസ്സ് തയിപ്പിക്കാനായിട്ടായിരുന്നു അപ്പോൾ എങ്ങനെ ബൾക്കായിട്ട് നിങ്ങൾ ഓർഡർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്നറിയാൻ വിളിച്ചതായിരുന്നു ഉണ്ട് അല്ലേ ഗേൾസും ബോയ്സും ഇപ്പം മൊത്തത്തിൽ ഇരുപത്തി അഞ്ച് പിള്ളേർക്കുള്ളത് അതിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട് ഗേൾസിന് ലാച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാവാടയും ബ്ലൗസും ഷോളും ബോയ്സിന് കുർത്തയും പാൻറും ഒത്തിരി വർക്കൊന്നും വേണ്ട സിമ്പിളായിട്ട് മതി ഒരു ദിവസത്തെ ഡേയ്ക്ക് വേണ്ടിയിട്ടാണ് ആനുവൽ ഡേയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോൾ നല്ല സിമ്പിളായിട്ട് മതി പിന്നെ അതിൻ്റെ റേയ്റ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ആയിരുന്നു മാറിവരും അല്ലേ ആ ഒരു ചെറിയ പ്രശ്നം ഉള്ളത് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇരുപത്തി അഞ്ച് ഡ്രെസ്സും വേണമായിരുന്നു അത് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമായിരിക്കുമോ

അവർ ആറാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളാണ് പത്ത് ഗേൾസും ബാക്കി പതിനഞ്ച് ബോയ്സും ആണ് അപ്പോൾ ഇതിനുള്ള മെഷർമെൻറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വന്ന് എടുക്കുമോ അതോ ഞാൻ പറഞ്ഞ് തന്നിട്ട് എടുത്ത് അയച്ച് തന്നാൽ മതിയോ വാട്സാപ്പിൽ അങ്ങനെ വല്ലതും ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നാളെ തന്നെ കാരണം ദിവസം ഇല്ല ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ അപ്പോൾ നാളെ തന്നെ വരാൻ പറ്റുമോ നാളെ ഉച്ചക്കത്തേക്ക് വരാൻ പറ്റുമായിരിക്കുമോ ഡ്രെസ്സിൻ്റെ മോഡൽ ഞാൻ അയച്ച്തരാം ഈ നമ്പറിൽ വാട്സ്ആപ്പ് എന്തോ മെറ്റീരിയലും കൂടെ നിങ്ങൾ എടുക്കുകയായിരുന്നെങ്കിൽ കുഴപ്പം ഇല്ലായിരുന്നു അങ്ങനെ എടുത്താൽ മതി എല്ലാവർക്കും ഒരേ പോലത്തെ ആ ഒരേ പോലത്തെ ഡ്രസ്സ് കളർ തീം ഞാൻ പറഞ്ഞു തരാം മെറ്റീരിയൽ നിങ്ങൾ എടുത്താൽ മതി ആ ഓക്കെ ഓക്കെ ശരി ഓ